നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കായിക വിനോദമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് എന്താ പറയുക ഈ ഏറ് പന്ത് കളിക്കാറുണ്ട് പിന്നെ കബഡി അത് നമ്മുടെ നാട്ടിലത്യാവശ്യം നന്നായി കളിച്ചു വരുന്ന ഒരു കളിയാണ് കബഡി വൈകുന്നേരം ഈ എട്ടന്മാരെല്ലാവരും കൂടി കളിക്കുന്ന കാണാറുണ്ട് നമ്മൾ അതായത് ചെറിയ കുട്ടികളല്ല കുറച്ച് മുതിർന്നിട്ടുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഈ കബഡിയും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് പിന്നെ ചെറിയ കുട്ടികൾ കളിക്കുന്നതാണ് ഈ എന്താണ് പറയുക ഏറു പന്ത് കളിക്കാറുണ്ടവർ പിന്നെ എന്താ പറയുക അങ്ങനത്തെ കളികളൊക്കെ അവർ കളിക്കാറുണ്ട് പിന്നെ സാധാരണയായിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടും ക്രിക്കറ്റ് അങ്ങനത്തെ കളികളാണ് കളിക്കുന്നത് നാടൻ കളികളൊക്കെ കുറവാണ് പണ്ടായിരുന്നു കുറേ നാടൻ കളികളും എന്താ പറയുക അതിൻ്റെ ആ ഒരു രീതി ഇപ്പോൾ എല്ലാവരും അധികവും ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനെ ആ ഒരു പിന്നെ നാടുകളിൽ മെയിനായിട്ട് വോളിബോൾ കളിക്കാറുണ്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്കൂളുകളിലൊക്കെയാണ് ബോൾ ത്രോ അങ്ങനത്തെ ഗെയിമുകൾ കളിക്കാറുള്ളത്